ഞങ്ങളുടെ ഇവിടെ കണ്ടൂർ ആണ് ആസ്പത്രി കണ്ടൂർ ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ ആണ് ആദ്യം ഒന്നും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആംബുലൻസ് സൗകര്യം പിന്നെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിത്തുടങ്ങി ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് സൗകര്യങ്ങളൊക്കെ ആയി പിന്നെ ഗർഭിണികൾക്ക് സാ ഡോക്ടർമാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഒക്കെ ഗർഭിണികൾക്കും പ്രസവത്തിൻ്റെ കാര്യത്തിനൊക്കെ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല സൗകര്യം ഉണ്ട് ഗവൺമെൻറ് ആസ്പത്രിയിൽ നല്ല താണ്